എനിക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതേപോലെ തലവേദനയും വയറിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ നല്ല തലവേദനയും അതേപോലെ വയറിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു

ഇല്ല രണ്ടുമൂന്ന് ദിവസം മുൻപ് നല്ല ശരീരത്തിന് നല്ല തണുപ്പ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ചുമയും ഉണ്ടായിരുന്നു ഇല്ല ഇല്ല കഴിക്കുന്നില്ല

ഇല്ല എനിക്ക് വന്നിട്ടില്ല പക്ഷേ എനിക്കൊരു സം ശയം ഉണ്ട് കോവിഡ് എങ്ങാനും ആണോ എന്ന് ഭക്ഷണത്തിനൊന്നും പ്രത്യേകിച്ച് രുചിയും മറ്റുമൊന്നുല്ല കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു അ ജലദോഷവും ഉണ്ട് അതേപോലെ മൂക്കടപ്പും ഉണ്ട് കഴിക്കുന്ന ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണത്തിന് പ്രത്യേകിച്ച് രുചി ഒന്നും തോന്നുന്നില്ല അ ഉണ്ട് അ രണ്ട് ദിവസമായി ഇന്നലെ വല്ലാത്ത വയറിളക്കം ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ച മുൻപ് വീട്ടില് ഉമ്മാക്ക് നല്ല പനി പോലെ ഉണ്ടായിരുന്നു കാണിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ അവര് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്തുനോക്കാൻ പറഞ്ഞായിരുന്നു അ ചെയ്തിരുന്നു ഇപ്പോൾ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിരുന്നു ഇല്ല തണുപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല

ഓക്കെ ഇന്നലെതൊട്ടാണ് വല്ലാണ്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത് തലവേദനയും വയറിളക്കവും ഒക്കെ